സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പ്രിത്യേകിച്ച് നമുക്ക് ഒ ഒരു കാര്യമെന്ന് എടുത്ത് പറയാൻ സാധിക്കാത്ത അത്രയും തരത്തില് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിത നിലവാരത്തെ മാറ്റി മറിച്ചിരിക്കുന്നു പണ്ടൊക്കെ നമുക്കൊരു അസുഖം വന്ന് ഒരാൾക്കൊരസുഖം വന്ന് നമുക്കവരെ ഹോസ്പിറ്റലെത്തിക്കുന്നതിന് മണിക്കൂറുകൾ താണ്ടി നമ്മൾ വാഹനങ്ങൾ പിടിച്ച് വീട്ടിൽ വന്ന് അവരെ ഹോസ്പിറ്റലിലെത്തിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവന് തന്നെ എന്തങ്കിലൊക്കെ ആപത്തുകൾ സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചികിത്സ നേടാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി നമുക്ക് വളരെയധികം സഹായകം ആകുന്നുണ്ട് സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ഡോക്ടർമാരായിട്ട് നേരി നേരിട്ട് കണ്ട് കൺസെൾട്ട് ചെയ്ത് നമുക്കൊരോ കാര്യങ്ങളുമറിയുന്നതിനും അതല്ല എത്രയും വേഗം നമുക്ക് ഹോസ്പിറ്റലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടുന്നതിനുമൊക്കെ സ്മാർട്ട് ഫോണ് വളരെയധികം സഹായിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ ധാരാളം പേർ സ്മാർട്ട് ഫോണുപയോഗിച്ച് അവരുടേതായ ജോലികൾ ചെയ്യ്കയും അവർക്കൊരു വരുമാന സാധ്യത കൂടിയാണ് ഈ സ്മാട്ട് ഫോണുകളെന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിനെക്കുറിച്ച് നമുക്കൊറ്റവാക്കിൽ പറഞ്ഞ് നിർത്താൻ കഴിയുന്നതല്ല അതായത് നി നാമിന്ന് ജീവിക്കുന്ന നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്മാർട്ട് ഫോണുപയോഗിക്കാത്ത ഒര് വ്യക്തിയും ഉണ്ടാകാറില്ല സ്മാർട്ട് ഫോണ് ഇല്ലാതെ അവരുടെ ജീവിതം ഒരൽപ്പം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് വാസ്തവവെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഭക്ഷണം വീട്ടിലെത്തിക്കുന്നതിനും ഒക്കെ നമുക്കെന്ത് ചെയ്യുന്നുണ്ട് നമുക്കത് സാധിക്കുന്നുണ്ട് നമ്മുടെ വിനോദപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മള് സ്മാർട്ട് ഫോണുകളുപയോഗിക്കുന്നത് സ്മാർട്ട് ഫോണെന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും അഡ്വാൻസ്ഡായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ മാറ്റി മറിച്ച ഒരു ഉപകരണം തന്നെയാണ് സ്മാർട്ട് ഫോണെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ സ്മാർട്ട് ഫോണിലൂടെ ആണ് ഇന്ന് മിക്ക ആളുകളും ജോലികൾ ചെയ്യുന്നതും അവരുടെ വരുമാനമാർഗ്ഗം കണ്ടെത്തുന്നതും ഒക്കെയും ഭക്ഷണത്തിനായിരുന്നാലും യാത്രക്കായിരുന്നാലും നമുക്ക് ഞൊടിയിടയിൽ സ്മാർട്ട് ഫോണുപയോഗിച്ച് നമുക്കെല്ലാത്തിനും സാധ്യമാക്കുന്നു അപ്പം സ്മാർട്ട് ഫോണെന്ന് പറയുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു